ഹലോ ആ പറഞ്ഞോളൂ അതെ പറഞ്ഞോളൂ എന്തായിരുന്നു ആ ഓക്കെ സാർ എന്തൊക്കെയാണ് എടുക്കേണ്ടത് ദിവാൻ കോട്ട് ഇപ്പം നമുക്ക് ഒരു ആറായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് സാർ ആ കുഷൻ നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും റേറ്റിന് വ്യത്യാസം വരും കൂടും ആ നമുക്ക് ഇപ്പം ഏകദേശം ഒരു നാല് ടൈപ്പ് സാധനം ഇവിടെ ഉണ്ട് പിന്നെ വുഡിൻ്റെ ഇതിലും ചേഞ്ച് വരും അതായത് തേക്ക് ഒക്കെ വരുവാണെങ്കിൽ തേക്ക് ഈട്ടി അങ്ങനത്തെ മരത്തിനൊക്കെ ആവുമ്പം വില കൂടി എന്ന് വരും ആ വില കൂടിയത് ആവുമ്പം ഓണത്തിന് നമ്മളിപ്പം ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്ന സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെ ടി വി കാര്യങ്ങൾ അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പിന്നെ സാറിന് പുറത്തുനിന്ന് വാങ്ങുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ നമ്മളടുത്തുനിന്ന് എടുക്കുന്നത് ആയിരിക്കും സാർ നമ്മൾ അത്ര റേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരാം

കോർണർ സെറ്റി ഇപ്പം നമുക്ക് ഒരു നൈൻ തൗ ആ ഒരു നൈൻ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആ അതിപ്പം കോർണർ സെറ്റി ആയതുകൊണ്ടാണ് സാർ അതാവുമ്പം രണ്ട് സൈഡിലേക്ക് ലെങ്ത് ഇരിക്കാനുള്ള ഇതും ഉണ്ടാവും സെൻ്ററിൽ മിഡിൽ ആയിട്ട് പോയത് വരുന്നത് കോർണറിൽ ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പം ഉള്ളത് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് സ്റ്റാർട്ടിംഗിൽ വരുന്നത് വേണ്ട സാർ ഇവിടെ വന്നിട്ട് നോക്കിയാൽ മതി ആ സാറിന് ഏയ് സാറിന് കണ്ടാൽ അറിയാമായിരിക്കുമല്ലോ മ് ആ ഓക്കെ ഓക്കെ അങ്ങനത്ത ടൈപ്പ് ആണോ വേണ്ടത് ഇപ്പോൾ സോഫ ഇപ്പം പിന്നെ അങ്ങനെ സ്പ്രിംഗും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോഴത്തെ കുഷൻ ഒക്കെ അടിപൊളി ആയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഇല്ല അത് ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ ബാക്കി നമ്മുടെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട് സാർ വരുവാണെങ്കിൽ ഫോട്ടോ കാണിച്ചിട്ട് നമുക്ക് ആവശ്യം ഉള്ളത് വേണമെങ്കിൽ എത്തിച്ചുതരാം ഓക്കെ എന്നാൽ സാർ നാളെ ഒന്ന് വന്നാൽ മതി മ്